നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പിന്നേ പഴങ്ങള് പൂക്കളൊക്കെ നമ്മള് ഒന്നും ചെയ്യാറില്ല അങ്ങനെ തന്നേ വയ്ക്കുകയാണ് ചെയ്യാറ് പൂക്കളൊക്കെ എന്താക്കാന അത് പൂത്ത് നിൽക്കുന്ന കാണാനാണ് ഭംഗി അതൊരിക്കലും പറിച്ച് നശിപ്പിച്ച് കളയുന്നതിന് അതിന് ഭംഗിയില്ല കുറച്ച് റോസയുണ്ട് കുറച്ച് ഇൻഡോർ പ്ലാൻറ്റുവുണ്ട് ഓർക്കിഡ് പോലത്ത കുറച്ച് ചെടികളുണ്ട് നമ്മളെന്ത് ചെടി അതവിടെ നിന്ന് പൂക്കളൊക്കെ അവിടെ നിക്കുന്നയാണ് കാണാൻ നല്ലത് അത് നമ്മള് പറിച്ച് തലയിൽ ചൂടുന്നതിലോ തലയിൽ ചൂടിയാൽ അന്ന് വാടി പോകും അത് അവിടെ നിൽക്കുവാണേൽ രണ്ട് ദിവസം കൂടെ നിക്കും അത് അത് പറിച്ച് കളയുന്നതിൽ എനിക്ക് താൽപര്യ ഇല്ല അത് അവിടെ തന്നെ നിക്കുന്നയാണ് എനിക്കിഷ്ടം ഫ്രൂട്ട്സാണെങ്കിൽ മാങ്ങയൊക്കെ ആണെങ്കിൽ മാങ്ങയും ചക്കയൊക്കെ ഫ്രൂട്ട്സിൽ പെടുവല്ലോ മാങ്ങയാണെങ്കിൽ ഞങ്ങള് പിന്നെ പായേലിങ്ങനെ ഒരച്ചൊരച്ച് മാങ്ങാ തൊലി ഉണ്ടാക്കി വെക്കും പിന്നെ കണ്ണി മാങ്ങ അച്ചാറ് അച്ചാറിടും പിന്നെ ഉപ്പിലിടും പൊറമാങ്ങ ഉണ്ടാക്കും ചക്കയാണെങ്കിൽ ചക്ക വരട്ടി വെക്കും ചക്ക ചക്ക വറത്ത് വെക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ചക്ക ചക്ക കൊണ്ടൊരു ചക്ക വരട്ടലും ചക്ക പിന്നെ പായസം ഉണ്ടാക്കും ചക്ക പായസം സൂപ്പറാണ് പിന്നെ മാങ്ങയും കൊണ്ട് മാങ്ങാ കറി ഇണ്ടാക്കും അത് അങ്ങനെയൊക്കെയാണ് ചെയ്യാ പിന്നെ ചാമ്പയ്ക്കയാണെൽ വൈനിട്ട് വെക്കും ചാമ്പക്ക വൈനിടാൻ സൂപ്പർ സാധനമാണ് ചാമ്പയ്ക്ക ചാമ്പക്ക വൈനിടും പിന്ന നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബാക്കി എല്ലാം സാധാരണയുള്ള പേരയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളാണ് അതു പിന്നെ പ്രത്യേകിച്ചൊന്നും കാര്യ ഇല്ല നമ്മള് ചാമ്പയ്ക്ക വൈനിട്ടു വെച്ചാൽ നല്ലതാണ് എനിക്കിഷ്ടാണ് ഞങ്ങള് കഴിക്കും എല്ലാരും കഴിക്കുകയും ചെയ്യും